മലയാളം ഭാഷ സംസാരിക്കുന്ന ഒരാളായതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു കാരണം ഏറ്റവും സ്ഫുടമായിട്ടും മലയാളം ഭാഷ സംസാരിക്കുന്ന ആൾക്ക് ഏത് ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണല്ലോ പറയുന്നത് ഇപ്പം തമിഴ്നാട് തമിഴ്നാട്ടുകാരൻ ആ മലയാളം പറഞ്ഞ് കഴിഞ്ഞാല് നമുക്കറിയാം മലയാളി അല്ലാത്തൊരാള് മലയാളം പറഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും അയാള് മലയാളിയാണോ അല്ലയോ എന്നുള്ളത് അയാളുടെ സംസാരത്തിൽ നിന്ന് മലയാളം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അറിയാം മലയാളത്തില് നമുക്ക് നമ്മുടെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഏറ്റവും ഹൃദയസ്പർശിയായ മകള് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏറ്റവും ഹൃദസ്പർശയായിട്ടുള്ള ഒര് കാര്യവാണ് അതുപോലെ മലയാളത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ അക്ഷരം എഴുതാൻ ഒക്കെ ആണേൽ ഇച്ചിരെ ബുദ്ധിമുട്ടാണ് പഠിച്ച് കഴിഞ്ഞാൽ ഈസിയാണ് പിന്നെ ആവശ്യമില്ലാത്ത കുറേ അക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ ഋ എന്നത്തിനാണ് ഈ ഋ കൊണ്ട് വച്ചേക്കുന്നത് എന്നറിയത്തില്ല ആകപ്പാടെ ഒര് ഋഷഫും ഉണ്ട് ഒരു ഋഷി ഉണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത കുറേ അക്ഷരങ്ങൾ ഉണ്ട് ഒരു ഗുണവും ഇല്ലാത്ത ഒരു ഉപയോഗവും ഇല്ലാത്ത അക്ഷരങ്ങൾ കുറേ ഉണ്ട് മലയാളത്തിൽ അതുപോലെതന്നെ

ഭാഷകളിൽ നിന്ന് കടം എടുത്തതാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒത്തിരി വാക്കുകൾ നമ്മളിപ്പം മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കൂടുതലും ഇപ്പം മലയാളത്തിൽ പല വാക്കുകളിൽ തന്നെ പകുതിയിൽ അധികം വാക്കുകൾ ഇ ഇംഗ്ലീഷിൽ നിന്നും മറ്റ് ഭാഷകളിൽ നിന്നും കടം എടുത്തതാണ് ആ അപ്പം പിന്നെ മലയാളത്തിൻ്റെ കാര്യം പിന്നെ മലയാളം ഭാഷ നമുക്ക് ഇഷ്ടമാണ് മലയാളം പെട്ടെന്ന് സംസാരിക്കാനായിട്ട് ഒരു കേൾക്കാനൊക്കെ ഒരു ഒരു രസമുള്ള ഭാഷയാണ് മലയാളം എന്നേ സംബന്ധിച്ച് ഞാൻ മലയാളിയായതിൽ അഭിന അഭിമാനിക്കുന്നു പിന്നെ മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ ഒരു പഠിക്കാനുമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് ബാക്കിയുള്ള ഭാഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷെ മലയാളം നമ്മള് പറയും അത്യാവശ്യം കാര്യങ്ങൾ ഒക്കെ പറയും എഴുതും മലയാളത്തിന് പ്രീഡിഗ്രിക്കെനിക്കേറ്റവും കുറവ് മാർക്ക് മലയാളത്തിന് തോറ്റ ഒരു വ്യക്തിയാണ് ഞാന് എനിക്ക് പിന്നെ എനിക്ക് മലയാളം പദ്യവും കവിതകളൊക്കെ വായിക്കാനും നോവൽ വായിക്കാനുമൊക്കെ ഇഷ്ടവാണ് അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പം അതിങ്ങനെ വായിക്കാറില്ല ഇപ്പം കൂടുതലും മൊബൈൽ നോട്ടവും പരിപാടിയും ഒക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികൾ എന്നാ മലയാള ഭാഷ നല്ലതാണ് മലയാളം മലയാള ഭാഷയിൽ മലയാള ഭാഷയിൽ സംസാരിക്കാനായിട്ടെനിക്ക് വളരെ ഇഷ്ടമാണ് മലയാളം സംസാരിക്കുവാനും എഴുതുവാണ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടവാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇഷ് ഇഷ്ടമുള്ള വാക്കുകൾ മലയാളത്തിൽ പറഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ അമ്മ മക്കള് എല്ലാ വാക്കുകളും എനിക്കിഷ്ടമാണ് അതാണെനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്